ആ ഹലോ ചേട്ടാ നിങ്ങൾ ഒരു വീട് അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് കേട്ടല്ലോ ശെരിയായിരുന്നോ നമ്മൾ ഇവിടെ പാറത്തോട് ഉള്ള ഒരു ബ്രോക്കർ സെൻറ്ററിൽ നിന്നാണ് വിളിക്കുന്നത് അതെ എൻ്റെ പേര് പ്രകാശൻ എന്നാണ് ആ ഒരു വീട് അന്വേഷിക്കുന്നുണ്ടോ നമ്മുടെ ഇവിടെ ഒന്ന് എൻക്വയറി കിട്ടിയായിരുന്നു അതേല്ലേ നമുക്കൊന്ന് രണ്ട് വീട് ഉണ്ട് അപ്പം എന്ത് ടൈപ്പ് വീടാണ് ഏകദേശം വാടക എന്തൊക്കെ ഉദ്ദേശിക്കുന്നത് എന്നൊന്ന് പറയുകയായിരുന്നെങ്കിൽ നമുക്ക് കൊണ്ടുപോയി കാണിക്കാമായിരുന്നു ഓക്കേ

ഓക്കേ അത് എത്ര ബെഡ്റൂം വീടുകളൊക്കെയാണ് ഉദ്ദേശി ഏകദേശം എത്ര ബെഡ്റൂം ഒക്കെ വീടുകളാണ് ഉദ്ദേശിക്കുന്നത് മ്മ് മ്മ് പിന്നെ മോഡേൺ വീടുകളാണോ അതേയോ ഏകദേശം പഴയ ഒരാവറേജും മീഡിയം ഓക്കേ മോഡേൺ വീടുകളെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ബഡ്ജെറ്റ് ആകുമായിരിക്കും കാരണം ഇപ്പോൾ മറ്റേ ഫ്ളോറിങ് ബാക്കി വയറിങ്ങുകളൊക്കെ കാര്യങ്ങൾക്കൊക്കെ പഴയ രീതി അല്ലല്ലോ ഇപ്പോൾ നമ്മളുദ്ദേശിക്കുന്നത് ഇപ്പോൾ കുറച്ചുംകൂടെ അഡ്വാൻസ്ഡായിട്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ ഫ്ലോറിംഗ് ഫ്ലോറിങ്ങൊക്കെ ആണെങ്കിലും മറ്റേ മാർബിൾ ഗ്രാനൈറ്റ് മാർബിൾ അങ്ങനെ ടൈൽ അങ്ങനെ ഉള്ള പല മോഡൽ ഉണ്ട് അപ്പോൾ ഓരോന്നിന് ഓരോ റേറ്റാണ് വരിക അപ്പം അത് ബഡ്ജറ്റ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ആലോചിക്കാമായിരുന്നു ഏകദേശം നമ്മുടെ നാട്ടിലൊരു സിക്സ് തൗസൻഡ് തൊട്ട് ടെൻ തൗസൻഡ് വരെ ഒക്കെ റെൻറ്റ് വീടുകൾ ഉണ്ട് മ്മ് ഓക്കെ ആ ടൗൺ ഏരിയ തന്നെ ഈ പറഞ്ഞ രീതിയിലൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പതിനായിരം രൂപ റേഞ്ചിൽ ആകുമെന്നെനിക്ക് തോന്നുന്നു ഈ സ്പെസിഫിക്കേഷൻ വെച്ചിട്ടുള്ള

ആ ഏകദേശം നമുക്ക് അങ്ങനെ ഒരു വീട് നമ്മുടെ കമ്പിളികണ്ടം ഭാഗത്തുണ്ട് ആ വീട്ടിലേക്ക് മെയിൻ റോഡ് സൈഡിൽ അല്ല ഉള്ളിലോട്ടൊരു നൂറ് ഇരുന്നൂറ് മീറ്ററുള്ളിലോട്ട് കയറിയിട്ടാണ് ആ അപ്പം അത് നമുക്ക് വേണമെങ്കിൽ ഞാൻ എന്നാൽ അവരോടൊന്ന് വിളിച്ചിട്ട് ഇന്ന് തന്നെ പറ്റുവെങ്കിൽ ഇന്ന് വൈകുന്നേരത്തേന് നമുക്കതൊന്ന് പോയി നോക്കാനുള്ള സാഹചര്യം അപ്പോൾ അത് മാത്രമല്ല ഞാനൊരു വേറെ ഒന്ന് രണ്ട് സ്ഥലത്ത് വീടുകൾ ഉണ്ട് പാറത്തോട്ടിൽ ആണെങ്കിൽ വേറെ ഒരെണ്ണം ഉണ്ട് അത് നമ്മുടെ സ്കൂളിനോടൊക്കെ ചേർന്നാണ് ആ അത് ശരി ആ അങ്ങനെ അങ്ങനെ ഒന്ന് രണ്ട് വീടുകൾ ഉണ്ട് അപ്പോൾ നമുക്കൊരു വൈകുന്നേരം ഒരു നാലുമണിക്കൊക്കെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മൂന്ന് നാല് വീട് പോയി കണ്ട് കാര്യങ്ങൾ സംസാരിക്കാമായിരുന്നു ഏതാണ് ഇഷ്ടപ്പെട്ടത് നോക്കിയിട്ട് നമുക്ക് ആ ആ ആ ഓക്കെ ആ അത് ഏകദേശം അഡ്വാൻസ് വരും ഗ്യാരണ്ടി ഒക്കെ ആയിട്ട് കുറച്ച് പൈസ ആ നാളെ തന്നെ കൊടുത്തിട്ട് ബുക്ക് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണോ ആ സെക്യൂരിറ്റി നല്ല വീടുകളൊക്കെ ആണെങ്കിൽ ഒരു ഒന്ന് രണ്ട് രൂപയ്ക്ക് ആകുമെന്നുണ്ടെന്ന് തോന്നുന്നു ആ അതെ അതെ ഏയ് ഇല്ല ഇല്ല എല്ലാം നല്ല വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പർപ്പസിൽ ഉണ്ടാക്കി ഇട്ടേക്കുന്ന വീടുകളാണ്

അതെ അതെ അതെ അപ്പോൾ എന്തേലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വേറെ ഒന്ന് രണ്ട് വീടുകൾ വിൽപ്പനയ്ക്ക് ഇട്ടേക്കുന്ന വീടുകളും ഉണ്ട് അപ്പോൾ നോക്കുകയാണെങ്കിൽ നാളെ സമയം കിട്ടുകയാണെങ്കിൽ അതും കൂടെ ഒന്ന് കാണാം ആ രണ്ട് നില വീടുകളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു നില ഉള്ള ഒന്ന് രണ്ട് വീടുകളുണ്ട് മ്മ് നമുക്ക് നാളെ സമയം കിട്ടുകയാണെങ്കിൽ അതുംകൂടി ഒന്ന് കണ്ടേച്ച് വാങ്ങാനുള്ള പരിപാടികൾ പ്ലാൻ ചെയ്യാം ആ എവിടെ ആയിരുന്നു വർക്ക് ചെയ്യുന്നത് അതേ അല്ലേ ആ ഓക്കെ ആ ഓക്കെ ഈ നമ്പറിലൊന്ന് വിളിച്ചാൽ മതി എന്നിട്ട് നമുക്ക് നാളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും മ്മ് മ്മ് ശരി ശരി ഓക്കെ താങ്ക്യു